ആദ്യമായി മുനിസിപ്പാലിറ്റിയെയും പഞ്ചായത്തിനേയും പറ്റി പറയണമെങ്കിൽ ഇതൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടു വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമ്മൾ ത്രീ ടയർ ഗവൺമെൻ്റെന്നൊക്കെ പറയുന്നതു പോലെ അങ്ങനൊരു ഭരണഘടന പ പരമായി നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഞ്ചായത്ത് മൂൻസിപ്പാലിറ്റിയും ജനങ്ങൾക്കു വേണ്ടിയാണിവർ കൂടുതലും പ്രവർത്തിക്കുന്നത് മുൻസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും നമ്മുടെ വീടിൻ്റെ നികുതി അടക്കാനും നമുക്കു വേണ്ട ജനന സർട്ടിഫിക്കറ്റുകളും നമുക്കു വേണ്ടിയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റുകളും നമുക്ക് നമ്മുടെ വീടിന് വീട് വെ പു പുതിയ വീട് വെക്കണമെങ്കിൽ അതിനു വേണ്ടി പെർമിഷൻ തരുന്നതും പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനടി സഹായം എത്തിക്കാനും വേണ്ടിയും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് മുൻസിപ്പാലിറ്റി പഞ്ചായത്തുകളും ചെയ്യുന്നത് പിന്നെ ക്ഷേമപ്പരിപാടികൾ ഇവർ ചെയ്യാറുണ്ട് സർക്കാരിൻ സർക്കാരിൻ്റെ ഓരോ പത് പദ്ധതികളിൽ എത്ര എത്ര വീടുകൾ ഈ പഞ്ചായത്തിൽ വെയ്ക്കണം അങ്ങനെയുള്ളത് ഇപ്പോൾത്തന്നെ ലൈഫ് പദ്ധതിയിൽ ഏർപ്പെട്ട ആൾക്കാർ ആൾക്കാരുടെ ലിസ്റ്റുകൾ വരെ കളക്റ്റ് ചെയ്തവർക്കു വീട് വെച്ചുകൊടുത്തത് പല പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളുമാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലേ മുൻസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും പ്രവർത്തിക്കുന്നത് നമുക്ക് നമുക്ക് ജനങ്ങൾക്കു വേണ്ട ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നും സമയബന്ധിതമായി തീർത്തു കൊടുക്കുന്ന ഒരേയൊരു സർക്കാർ സ്ഥാപനങ്ങളിലൊന്നാണ് പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളുമെന്നു ഞാൻ പറയുന്നു